നൃത്തരൂപങ്ങൾ പഴയകാലത്തു നിന്നും ഇപ്പം കുറെയേറെ മാറിയിട്ടുണ്ട് ഈ പുതിയ കാലത്തിനനുസരിച്ച് ഈ പാട്ടുകളുടെ ശൈലിയും നൃത്തരൂപങ്ങളുടെ സ്റ്റെപ്പുകളും എല്ലാം മാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും ആ പാട്ടുകളുടെ രീതിക്കനുസരിച്ച് നൃത്തം ചെയ്യണം എന്നുള്ള ആ ഒരു രീതി കൊണ്ടാണ് ഇപ്പം നൃത്തരൂപങ്ങളും മാറിയിട്ടുള്ളത് അതായത് പഴയ പഴയ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നതായിരുന്നു നല്ല ഒഴുക്കുള്ള ഒരു പാട്ടായിരുന്നു അതായത് പണ്ടുകാലത്തെ സംഗീത ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പാട്ടുകളെന്നൊക്കെ പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിരുന്നു നല്ല സ്ലോ ആയിട്ടുള്ള പതുക്കെ പതുക്കെ ഉള്ള പാട്ടുകളൊക്കെയായിരുന്നു ഇപ്പം പക്ഷേ ഈ കാലത്തു ഡി ജെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതോടുകൂടി ആ പണ്ടുകാലത്തെ ആ ഒരു സംഗീതശൈലി ഒക്കെ മാറി അതിനനുസരിച്ചാണ് നൃത്തരൂപങ്ങളുടെ സ്റ്റെപ്പുകളും ആ ഒരു ശൈലിയും ഒക്കെ താനെമാറി സംഗീതത്തിനനുസരിച്ചുള്ള ആ ഒരു ഇതൊക്കെയായി പാട്ടുകളും മാറിയതോടെ നൃത്തരൂപങ്ങളും എല്ലാം മൊത്തം ആയിട്ടു മാറിയിട്ടുണ്ട് ഈ പാട്ടിനനുസരിച്ച് ആണ് നമ്മൾ നൃത്തം ചെയ്യുന്നത് അപ്പം ആ പാട്ടുകൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നൃത്തരൂപങ്ങളും മാറും നൃത്തരൂപങ്ങളുടെ ശൈലിമാറും ആ ഒരു സ്റ്റെപ്പുകളും വ്യത്യാസപ്പെടും അപ്പം അതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ പണ്ടുകാലത്തെ ഒരു രീതി വെച്ചു നോക്കുമ്പം സംഗീതവും നൃത്തവും എല്ലാം മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഇത് മാറി മാറി പുരോഗമിച്ചു വരുന്നുണ്ട് അപ്പം അതാണ് പ്രധാന കാരണം പണ്ടുകാലത്തെ രീതികളിൽ നിന്നും വളരെ വ്യത്യസമാണ് ഈ പ്രാ ഈ കാലഘട്ടത്തിലെ രീതികൾ എന്നു പറയുന്നത്